ആ ജ്യോതിയല്ലേ ഇത് ആ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിനെല്ലോ നമ്മളെ വീട് ഇൻറീരിയർ വർക്ക് ചെയ്യാനും ഒന്ന് പുതുക്കി പണിയാനൊക്കെ നമ്മൾ പത്താം തീയതി നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിക്കൂടേ ആ നമുക്ക് നമ്മളെ സിറ്റ് ഔട്ട് ആ പഴയ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ചുകൂടെ വലിപ്പം വേണം ഏ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലെ ഏരിയയിലും അതുപോലെ പിന്നെ ഗ്യാസ് വയ്ക്കാനും പിന്നെ നമ്മുടെ മിക്സി ഇതൊക്കെ വയ്ക്കാൻ അവിടെ ഒക്കെ ആ പഴയ മോഡൽ ആയതാണ് അപ്പോൾ ഈ പുതിയ മോഡലിലേക്ക് ഇങ്ങോട്ട് മാറ്റണം ആ കുറച്ചും കൂടെ വലിപ്പം ആവണം ആ ചുമരൊക്കെ തട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അതിവിശാലം ആയിട്ട് ഒന്നൊരു വലിപ്പം കൂട്ടി ഫ്രിഡ്ജും അവിടെത്തന്നെ വയ്ക്കണം ഉം പി ആ പിന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റോർ റൂം സ്റ്റോർ റൂം വേണം റാക്ക് വ് അതൊക്കെ ഒന്ന് വാർക്കണം പിന്നെ ആ പിന്നെ അപ്പോൾ പിന്നെ ഹാളിൽ ഇതുപോലെ തന്നെ ആണ് നമുക്ക് ടി വി വയ്ക്കുന്നത് ഇവിടെ ഏ അവിടെയും വേണം ഒന്ന് ആ അത് ആ ആ സെറ്റ് ആക്കാം അല്ലേ ഓ കിച്ചണിൽ നമ്മൾ ആ സിങ്ക് സിങ്ക് മാറ്റണം ഏ ആ സിങ്ക് മാറ്റണം റാക്ക് ഒന്നും കൂടി നീട്ടി വാർക്കണം കുറച്ചുകൂടെ ആ പിന്നെ അതുപോലെ നമുക്ക് സാധനങ്ങൾ ഒക്കെ വയ്ക്കാനുള്ളൊരു റാക്ക് ഉണ്ടാക്കണം അവിടെ ഉം അപ്പം ആ വാഷ് ബേസിൻ ആ അതെ അത് നമുക്ക് ആകോണീൻ്റെ അവിടെ ആക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്യാം

അത് അത് നിങ്ങളേ പിന്നെ അധികം നീട്ടരുത് എനിക്ക് ആകെ ഒരു മാസത്തെ ലീവേ ഉള്ളൂ അപ്പോല് അതിൻറെ ഉള്ളിൽ തന്നെ ആ ആ ആ ആ ആ പിന്നെ നമുക്ക് അവിടേ ഈ ഇതേ ആ ഇത് സ്മെൽ ഒക്കെ ഇതിങ്ങനെ പോവാനൊക്കെ ഉള്ള അതും വേണം ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അതൊന്നും ഇല്ല അത് ഇപ്പോഴത്തെ അതിന് ആ അതൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാളിലത്തെ കാര്യം ആ ആണ് പിന്നെ ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ നമുക്കൊരു ബാത്റൂം അത് വേണം ഏ ഒന്നിലേ ഉള്ളൂ ഒന്നിൽ ഇല്ല അപ്പം അതൊന്ന് റെഡി ആക്കണം

കോണീൻറേത് സ്റ്റെയർക്കേസിൻറേത് നമുക്ക് അത് മാറ്റിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ഇതിൽ മോഡൽ ടൈൽ ഒട്ടിക്കണം നമുക്ക് ആകെ എല്ലാം നിലം ആ ഫ്ലോർ ഫുൾ മാറ്റണം ആ ഫ്ലോർ ഫുള്ളും അത് കുത്തി പൊളിച്ച് ഒഴിവാക്കിയിട്ട് പുതിയ ആ ആ പുതിയ പുതിയത് ഇടണം അതുപോലെ സ്റ്റെയർക്കേസിൻറെ ആറ്റിയിട്ട് അത് നല്ല കുറച്ചും കൂടി ആ നല്ല ആ അതെ അതെ അതെ അതെ പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ പറയാതെ തന്നെ എങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർക്ക് നിങ്ങളെ തന്നെ ഞാൻ ഏൽപ്പിക്കാമെന്ന് കരുതുന്നത് ഉം അപ്പോല് അത് വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം

പിന്നെ കുറച്ച് നമുക്ക് പ്ലമ്പിങ്ങിൻറെ ഇതിൽ ആ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ് കാര്യങ്ങൾ അതും വേണം ഇപ്പം എന്നറിയാ അത് നിങ്ങളെ അറിവിൽ അതിന് പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും സെറ്റ് ആക്കണേ

ആയിക്കോട്ടെ പിന്നെ വേറെ ഇപ്പം പറഞ്ഞാൽ

ആ ആ ആ അത് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ആ ആ അതെ അതെ അതെ അതെ അപ്പം നമുക്ക് അടുക്കളയിൽ സ്പേസ് കമ്മി ആയിരിക്കും അപ്പം നമുക്ക് ആ സ്പേസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ചുമര് ആ ആ അത് പറ അതെ അതെ ആ ആ ഇവിടെ ഈ ആ പടിഞ്ഞാറ് വശത്തെ ആ ചുമര് അത് തട്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടി ഒന്നത് ആ ഒരു രണ്ട് മൂന്ന് മീറ്ററും കൂടി നീട്ടിയിട്ട് ആ നീട്ടി എടുക്കാം കേട്ടോ ആ ആ ആ അത് ഏ ഏറ്റവും ബെറ്റർ ഏതാണ് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ ഉം നല്ല നല്ലത് തന്നെ അയിക്കോട്ടെ ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിക്കോട്ടെ ആ ആ ആ ആ അതെ ആ ഡോറിൻറെ ആ വർക്കും നിങ്ങൾ നോക്കില്ലേ അപ്പോൾ ആ ആ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ഷോക്കേസ് ഉള്ള അത് പറഞ്ഞാലും അതും ഇതുപോലെ തന്നെയാണ് ചെറുതാണ് ഏ അപ്പോൾ നമുക്ക് ആ ഷോക്കേസും വേണം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വലിപ്പം കൂട്ടിയിട്ട് ആ ഒരു ആർച്ച് മോഡലിൽ ആക്കിയിട്ട് എടുക്കാം അതിമ്മൽ ലൈറ്റ് ഒക്കെ വയ്ക്കാം ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ് വയ്ക്കാൻ കണ്ടിട്ടുള്ളൊരു ഇതിലായിരിക്കണം കേട്ടോ വരേണ്ടത്

അപ്പോൾ എന്നാൽ നിങ്ങൾ ഞാൻ പത്താം തീയതി ഒക്കെ ആവുമ്പോഴേക്കും എത്തും അന്നേരം അവുമ്പോഴേക്കൊക്കെ നമുക്ക് റെഡി ആക്കിക്കൂടേ എന്നാൽ പണിക്കാരെ ഒക്കെ സെറ്റ് ആക്കിക്കൂടേ ആ ആ അപ്പോൾ എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ശരി എന്നാൽ